കളികളിലൂടെ കുട്ടികൾക്ക് കുട്ടികളുടെ ശാരീരിക ശക്തിയും മനസ്സിൻ്റെ ശക്തിയും സന്തോഷവും ഉറപ്പുവരുത്താൻ കഴിയും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗെയിം ഫുട്ബോളാണ് ഞാൻ ഫുട്ബോൾ കളിക്കുമ്പോൾ വളരെ സന്തുഷ്ടനാണ് എൻ്റെ കൂടെയുള്ള കുട്ടികളും വളരെ സന്തുഷ്ടനാണ് അതിനാൽ എൻ്റെ ശാരീരിക മാനസിക അവസ്ഥ വളരെ നല്ല രീതിയിലാണ് പോകുന്നത് എൻ്റെ ശരീരം ഫുട്ബോൾ കളിക്കുന്നതിനാൽ വളരെ ഹെൽത്തി ആണ് വീട്ടിൽ ഇരുന്നു ഫ് ഇരിക്കുന്നതിനേക്കാൾ നമ്മൾ കളിക്കാൻ പോകുമ്പോൾ നമ്മുടെ മനസ്സിനുണ്ടാകുന്ന സന്തോഷം വളരെ അതു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വളരെ അധികം നല്ല ഒരു സന്തോഷമാണ് കുട്ടികൾ കളിക്കാൻ പോകുന്നതിലൂടെ അവർക്ക് ശാരീരികമായും മാനസികമായും എല്ലാം ഉയർച്ച ഉണ്ടാകുന്നതാണ് കുട്ടികൾ വീട്ട് കുട്ടികളെ വീട്ടിനകത്ത് കുറ്റിയിട്ട് വളർത്തുന്നതിനേക്കാൾ നല്ലതാണ് കുട്ടികളെ കളിക്കാൻ വിടുന്നത് അവർ സന്തോഷവാനായിരിക്കും മറ്റു കുട്ടികളുടെ കളിച്ചു വളർന്ന് അവരുടെ കഴിവുകൾ വളർത്തിയെടുക്കാൻ കഴിയും അവർക്ക് ആവുന്ന കഴിവുകൾ മാതാപിതാ കണ്ടെത്തി എടുക്കാൻ കഴിയും ചെയ്യും കുട്ടികൾ കളിക്കാൻ പോകുന്നതിലൂടെ അവർക്ക് നല്ലതു മാത്രമേ ഉണ്ടാകുകയുള്ളൂ